ഫോണും ഇൻ്റർനെറ്റും കിട്ടിയതോടു കൂടി നമുക്ക് കാര്യങ്ങൾ എളുപ്പകരമായി ഇപ്പോൾ നമുക്ക് ഒരു ഒരു സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഒരു ടീയേറ്ററിൽ അപ്പോൾ നമുക്ക് അത് പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ബുക്കിങ്ങിന് ആപ്പ് എടുക്കുക നമ്മൾ ലോഗിൻ ചെയ്യാ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാ നമുക്ക് ടിക്കറ്റ് അവിടെ ലഭ്യമാണ് സീറ്റ് ഏതാണ് എന്ന് വെച്ചാൽ നമുക്ക് ലഭ്യമാകും പിന്നെ നമുക്ക് എപ്പോഴാണ് ഷോ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ കണ്ടാൽ മാത്രം മതി നമ്മൾ ക്യൂ നിൽക്കുയോ മറ്റു തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പം അതു കൂടാതെ ഇപ്പോൾ മറ്റേ ഒരു റൂം ബുക്ക് ചെയ്യണം റൂം ബുക്ക് ചെയ്യുന്നതിനും ഫുഡ് ഓർഡർ ചെയ്യാനും എല്ലാ കാര്യത്തിനും നമുക്ക് എന്ന നമുക്ക് ഇപ്പം കൂടുതൽ ഈസി ഈസിയായിക്കൊണ്ടിരിക്കുവാണ് കാര്യങ്ങൾ അപ്പം ഇങ്ങനെ ഇങ്ങനെ വരുന്നതോടുകൂടി നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ഈസിയാകുന്നുണ്ട് എന്നാൽ എല്ലാവരും യൂസ് ചെയ്യാനും തുടങ്ങിയിട്ട്ണ്ട് അപ്പം ഇതിൻ്റെ ഉപയോഗവും കൂടികൊണ്ട് വരുകയാണ് അതിൻ്റെ കാര്യങ്ങൾ കൂടി കൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും യൂസർ ഫ്രണ്ട്ലിയാണ് അപ്പം അവരുടെ ഡെയിലി ലൈഫ് കുറച്ചു കൂടെ ഈസിയാക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതിൽ സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈഡാണ് അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നും ഉണ്ട്